ഇത് ഓല ക്യാബല്ലേ ഞാനെൻ്റെ ഫാമിലിയായിട്ട് കന്യാകുമാരി പോവാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം റെൻറ്റിനായിട്ടൊരു കാറത്യാവശ്യമായിട്ട് വേണം കുറച്ച് ദൂരം ഞങ്ങളോടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തൊരു ട്രിപ്പാണ് ഞങ്ങൾ കന്യാകുമാരി കഴിഞ്ഞ് പിന്നെ ഊട്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെയായിട്ട് ഒരു എട്ട് ആൾക്കാരെ ഉൾക്കൊള്ളുന്നൊരു കാറ് വേണം ഞങ്ങൾക്ക് അതും പിന്നെ അവരുടെല്ലാവരുടെയും ലഗേജും കൂടെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുന്നൊരു ഡിക്കിയോ അല്ലെങ്കിൽ ഒരു ദ് സ്പേസോ വേണം ഞങ്ങൾക്കെല്ലാവർക്കും അത്യാവശ്യം സ്പേഷ്യസായിട്ടിരിക്കാൻ പറ്റുന്നൊരു കാറ് തന്നെ വേണം ഇത്രേം ദൂരം ഒരു തടസ്സമില്ലാതെ ഒടുന്നൊരു കാറ് വേണം